ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ യുവാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ജോലിയില്ലായ്മ ഏന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് ജോലി ചെയ്യാനും വില്ലിംഗ ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് ഇപ്പം കേരളത്തിലും ഒരുവിധം സ്ഥലത്തൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് ജനങ്ങൾ ഒരുപാട് യുവാക്കൾ ഒരുപാട് ആളുകളും പ്രിഫർ ചെയ്യുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന സ്ഥലം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജി സി സി കൺട്രീസ് അല്ലെങ്കിൽ ഒരു ലണ്ടൻ ജർമ്മനി പോലെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയി പാർട്ട് ടൈം ജോബും സ്റ്റഡിയൊക്കെ പ്രിഫർ ചെയ്യുന്നവരുണ്ട് ജോലിക്ക് മാത്രമാണെങ്കിൽ ജി സി സി കൺട്രീസ് ആണ് കൂടുതൽ യുവാക്കളും പ്രിഫർ ചെയ്യുന്നത് ഒരുവിധം യുവാക്കളും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ താൽപര്യപ്പെടാത്ത ആളുകളാണ് എന്നുള്ളത് പിന്നെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി അങ്ങനെയുള്ള വലിയ വലിയ നഗരങ്ങളിൽ പോയി ജോലി ചെയ്യാനാണ് അതും ഐ ടി മേഖലകളിലൊക്കെയാണ് ബാംഗ്ലൂർ ബേസ് ഐ ടി ഐ ടി ഹബാണ് ഇന്ത്യയുടെ ഐ ടി ഹബാണ് ബാഗ്ളൂർ അപ്പം ഐ ടി മേഖലയിലുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൃത്യമായിട്ടും യുവാക്കൾ പോകുന്നത് ബാംഗ്ലൂർ ബെയ്സ്ഡ് ആണ് പക്ഷെ സാലറി വൈസ് നോക്കുകയാണെങ്കിൽ കുറവായതിൻ്റെ കാരണത്താൽ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ജി സി സി കൺട്രീസ് ആണ് ജോലിക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നത് ജി സി സി കൺട്രീസും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ യുവാക്കൾ പലരും ഇപ്പം മാറി ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട് ഒരുപാട് ജോലി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജോലി സാധ്യതകൾ കൂടുന്നത് കൊണ്ട് കുറെയൊക്കെ ഇവിടെ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കൊണ്ട് കുറച്ചാളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനം യുവാക്കളും സ്വന്തം നാട്ടിൽ നിന്നും മാറി നിന്ന് ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ഇന്ന് ഇപ്പം ജി സി സി കൺ്രീസ് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒരു ഈ പഠിച്ച ജോലി തന്നെ പഠിച്ചത് തന്നെ ജോലി ചെയ്യണം എന്നില്ല വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ട് ഇന്ത്യയിൽ ജോലിസാധ്യത വളരെ കുറവാണ് ഇന്ത്യയിൽ ജോലി സാധ്യത ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് അതുപോലെ മറ്റ് ഇൻ്റർനാഷണൽ ലണ്ടൻ ജർമ്മനിയൊക്കെ പോകുന്ന സ്ഥലത്ത് അവിടെ പഠിക്കുകയും പാർട്ട് ടൈം ജോബ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ പഠിക്കുന്നത് ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചു ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ജർമ്മൻ നേഴ്സിംഗങ് നല്ല മേഖലയാണ് ജർമ്മനിയിലുള്ള അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ബാംഗ്ലൂർ ഇന്ത്യയിൽ വച്ചു നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ തന്നെയാണ് അതും ഐ ടി മേഖലയൊക്കെ ഉഷറായ ആളുകൾക്ക് മാത്രമാണ് അവിടെ ഒരു അവൈലബിലിറ്റി സീറ്റ് ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പോക്കി